കേരളത്തിലെ നെല്ലറയെന്നറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട് അതിൽ നിന്നുതന്നെ മനസിലാക്കാം നമുക്ക് പാലക്കാട് ലെ ജനങ്ങൾ കൃഷിക്ക് വളരെ പ്രശനം പ്രാധാന്യം നൽകിയിരിക്കുന്ന ജനങ്ങളാണ് എന്നുള്ളതാണ് അപ്പോൾ അവരുടെ സാമ്പത്തിക സ്ഥിതിയും എല്ലാം തന്നെ കൃഷിയിലൂടെയായി ബന്ധപ്പെട്ടതു കാരണം സാമ്പത്തികമായിട്ടും വളരെ പിന്നോക്ക അവസ്ഥയിലാണ് അപ്പോൾ ഇതില് എന്താ ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ ഗവൺമെൻ്റ് കൃഷിക്ക് വേണ്ടിട്ട് നല്ല പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന് കൃഷിക്കാരുടെ ഉന്നമനത്തിനായിട്ട് അതിലോരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോഴാണ് ഈ പാലക്കാട് ജില്ല വികസനത്തിൽ മുൻപന്തിയിൽ എത്തുകയുള്ളൂ